ഹലോ ആ ബ്രോക്കറല്ലേ ബ്രോക്കറല്ലേ ആ ഇന്നലെ വിളിച്ചിരുന്നു ഞാൻ ഒരു പ്രോപ്പർട്ടീടെ ഒക്കെ കാര്യം ചോദിക്കാൻ വേണ്ടീട്ട് പ്ലോട്ട് നോക്കാൻ പറഞ്ഞായിരുന്നല്ലോ ആ അതെ അതെ അതെ അതെ ആ പത്തനംത്തിട്ട ജില്ലേത്തന്നെ വേണം എന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു ആ ആ ആ ഹാ ഹാ ഹാ അപ്പം എന്തെങ്കിലും നമുക്കൊരു പ്ലോട്ട് അതായത് വീടും കൂടൊള്ള ഒരു പ്രോപ്പട്ടിയാണ് നമ്മൾ നോക്കുന്നത് ആ അത്യാവശ്യം സ്ഥലം കുറച്ച് സ്ഥലം കൂടെ വേണം അല്ലാതെ ഇച്ചി കൃഷി ചെയ്യാനുള്ള ഇത്തിരി സ്ഥലം കൂടെ ഉൾപ്പടെ അങ്ങനുള്ള പ്രോപ്പർട്ടിയായിരുന്നു നോക്കേണ്ടിയിരുന്നത് ആ അതെ അതെ അതെ അതെ അതെ അതൊരു നമുക്ക് ഇതായിട്ടുള്ളൊരു പ്രൈസിലെ നമുക്ക് താങ്ങാവുന്നൊരു പ്രൈസിൽ ഉള്ളത് ആണ് നോക്കുന്നത് ആ ആ ആ ആ ആ ആ ആ ആണോ ആ ഹാ ഹാ ഹാ ഹ് ഹും മ്ഹ മ്ഹ മ്ഹ മ്ഹ മ്ഹ മ്ഹ എത്ര സെൻറ്റ് സ്ഥലമുണ്ടെന്നറിയാമോ ആ പത്ത് സെൻറ്റ് അപ്പം അത് ഇരുപത് ലക്ഷം പിന്നെ വീടിൻന്റേം കൂടെ അല്ലേ ആ ആ ആ ആ വരുന്നുണ്ട് ഓക്കേ ആ ആ ആ കുറവാണ് ആ ആ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് വേനൽക്കാലത്ത് ആ ആ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് അത് നമുക്ക് ബുദ്ധിമുട്ടാണ് വേനൽക്കാലത്ത് വെള്ളത്തിന്റെ ഷോട്ടേജ് നമുക്ക് പറ്റത്തില്ല അത്

ആ വെ ഓഹ് വെള്ളം കയറുന്ന അല്ലെങ്കിലും കിട്ടാൻ ബുദ്ധിമുട്ടാവുമ്പം അതൊരു പ്രശ്നവാണ് വേറെ പിന്നെ ഏതായിരുന്നു പറഞ്ഞത്

വീട് ആ ആ ഹാ ഹാ മ് മ്ഹ് മ്ഹ് മ്ഹ് ആ ഹാ ഹാ ഹാ ഹാ ആ വീട് റോഡ് സൗകര്യമുണ്ടല്ലേ ആ ആ ആ റോഡ് സൗകര്യമുണ്ട് അതാണ് അത് നമുക്ക് പ്രധാനവാണ് കാരണം കുട്ടികൾക്ക് സ്കൂളിപ്പോകുന്നതാണേലും പ്രായവൊള്ളവരൊക്കെ വീട്ടിലുള്ളതാണ് അപ്പം നമുക്ക് ഈ വാഹനങ്ങളുടെ സൗകര്യം ഉണ്ടാവണം ആ ഹാ ഹാ ഹാ ഹ് ഹാ ഹാ ആണ് ആ വേറേ ആ ഹാ ഹാ ഇതെത്രയാണ് പ്ലോട്ടെത്രയാണത് അതെങ്ങനെയാണ് പ്രോപ്പർട്ടീടെ എത്രയാണ് പ്രൈസെത്രയാണ് ആ അതെ അതെ അതെ ഓഹ് ഓഹ് ഹോ ഹോ ഹോ ഹാ ഹാ വീടില്ല ആ ഹാ ആ അതെത്ര സെൻറ്റ് സ്ഥലവാണ് അതെത്ര സെൻറ്റ് സ്ഥലവാണ് റാന്നി ഭാഗമൊക്കെ വെള്ളം കയറുന്നതാണല്ലോ അവിടെ അങ്ങനെ പ്രശ്നമുള്ളതാണോ ആ ഹാ ഹാ ഹാ ഹാ അവിടെ വീടില്ലെന്നല്ലേ പറഞ്ഞത് പ്രോപ്പർട്ടി മാത്രമല്ലേ ആ ഹാ ഹാ ഹാ ഓക്കെ ആ ആ ആ അത് അത് എത്രയാന്നാ പറഞ്ഞത് സെൻറ്റിന് മൂന്നര ആ ഓക്കേ ഞാൻ എന്തായാലും ഇത് മൂന്നും ഹസ്ബൻറ്റിനോട് പറഞ്ഞ് ആലോചിച്ചിട്ട് തിരിച്ച് വിളിക്കാം ഓക്കെ ഓക്കെ ഓക്കെ